നമ്മളെല്ലാവരും ബസ്സില് യാത്ര ചെയ്യുന്നവരാണ് ബസ്സില് യാത്ര ചെയ്യാത്ത ആളുകള് വളരെ കുറവായിരിക്കും ബസ്സെന്ന് പറഞ്ഞാലിപ്പോൾ ഡ്രൈവർ സീറ്റ് മുമ്പിലായിരിക്കും ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ട് ബേക്കോട്ടാണ് നമ്മളാളുകള് ഇരിക്കേണ്ടത് പത്തിരുപത് സീറ്റുകളൊക്കെ ഉണ്ടാകും ബസ്സില് കുറേ ആളുകൾക്ക് ഇരിക്കാൻ പറ്റും കൂടുതൽ തിരക്കാണെങ്കിൽ എല്ലാവരും നി കുറച്ചാൾക്കാര് നിക്കണ്ടിവരും നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണെൽ നമുക്കിരിക്കാൻ പറ്റില്ലായിരുന്നു നമുക്ക് നിൽക്കണമായിരുന്നു ചെറിയ പൈസ കൊടുക്കുന്നതുകൊണ്ട് ഞമ്മക്ക് എഴുന്നേറ്റു നിക്കുക തന്നെ വേണമായിരുന്നു ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ ആദ്യം ഉണ്ടായിരുന്നത് കേറിയ പാട് രണ്ട് ഡോറുണ്ടാവും ബസ്സിന് പിന്നെ മുമ്പില് ഡ്രൈവർ സീറ്റായിരിക്കും കണ്ടക്ടർക്ക് മാത്രായിട്ടൊരു സീറ്റുണ്ടാവും അതിപ്പോൾ കണ്ടക്ടറങ്ങനെ ഇരിക്കാറില്ല അയിനോണ്ട് തന്നെ അവിടെ വേറെ ആർക്കെങ്കിലുമൊക്കെ ഇരിക്കാം പിന്നെ ബസ്സില് അമ്മയും കുഞ്ഞും ആയിട്ട് കയറുന്നവർക്ക് ഒരു സീറ്റുണ്ട് പിന്നെ അംഗവൈകല്യള്ളവർക്ക് ഒരു സീറ്റ് അങ്ങനെ രണ്ട് സീറ്റ് അവർക്കായിട്ട് പിന്നെ ഒരുപാട് സീറ്റുകള്ണ്ട് ബസ്സില് വിൻഡോകളാണെങ്കിലും സൈഡ് സീറ്റിലിരിക്കുന്നവർക്കാണെൽ ജനലുകള് പുറത്തേക്ക് ഒരു ഉണ്ട് നമുക്ക് പുറത്തോട്ട് ഇരിക്കാം ഒരു സീറ്റ് തന്നെ മൂന്നു സീറ്റായിട്ടുള്ളതുണ്ട് രണ്ട് സീറ്റായിട്ടുള്ളതുണ്ട് അതിലൊരു അഞ്ചാറ് ആറ് ഏഴ് സീറ്റുകള് പെണ്ണ് സ്ത്രീകൾക്ക് ഉള്ളതാണ് അതില് അന്യ പുരുഷന്മാരാരും ഇരിക്കാൻ പാടില്ല